മാഡം ആ മേഡം ഞാൻ എൻ്റെ മകളുടെ അഡ്മിഷനായിട്ട് വന്നതാണ് ആ അവളിപ്പോൾ എൽ കെ ജിക്കിപ്പോൾ അഡ്മിഷന് വന്നതാണ് കുട്ടിക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു ആ ആ ആ അപ്പോൾ ഇവിടെയാണ് അഡ്മിഷൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയാണ് മാഡം ഇവിടുത്തെ ഡൊണേഷൻ എത്രയാണ് ഓ ഓ ആ ആ

ഓ ആ ആ ആ ആ ആ ആ മാഡം എൻ്റെ മൂത്ത മകൾ ഇവിടെത്തന്നെയാണ് സെക്കൻ്റ് സ്റ്റാൻ്റേർഡാണ് പഠിക്കുന്നത്

ആ അവളുടെ പേര് മിഥില ആ റ്റൂ ബിയിലാണ് പഠിക്കണത് ആ ആ ആ ഇവിടെയിപ്പോൾ എൽ കെ ജിയിലിപ്പോൾ ആയതുകൊണ്ട് അത്യാവശ്യം അഡ്മിഷൻ കാര്യങ്ങളൊക്കേ വന്നിട്ട് കുറേ കുറേ വന്നിട്ടുണ്ടാവുമല്ലേ ആ ആ ആ

ആ പിൻ ആ വീട് ഇവിടെനിന്ന് കുറച്ച് ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ എങ്ങനെയാണ് സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെനിന്ന് സാധാപോലെ അല്ലാണ്ടിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് വേറെ സമയത്താണോ അതോ ഇവിടെ സ്ഥലമിവിടേ വടക്കാഞ്ചേരി ആ ആ ആ ആ ആ ആ ആ പിന്നേ കുട്ടികളിപ്പോൾ ചെറിയ കുട്ടിയാണിപ്പോൾ എൽ കെ ജിയൊക്കെ ചെറിയ കുട്ടിയായതുകൊണ്ട് ആ ഇപ്പോൾ ആ അവരുടെ ആ കുറച്ചൊരു അ ആ അ ആ

ഓക്കേ മാഡം ഈ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ഇല്ല അവൾ സ്മാർട്ടാണ് അ ഇല്ല ഇല്ല ഇല്ല അവൾക്ക് ഇപ്പോൾത്തന്നെ പോവാൻ നല്ലൊരു ആഗ്രഹമാണ് ഭയകര ഒരു പോണം എന്നൊക്കെ പറയുകയാണ് ആ ആ മേഡം പിന്നെ യൂണിഫോമൊക്കെ എങ്ങനെയാണ് അ ആ എങ്ങനെയാണ് ഇവടെനിന്നുതന്നെ തുണി തരികയാണോ അതോ നമ്മളെടുക്കണോ

ഓക്കേ ആ ആ ഓക്കേ ഓക്കേ ആ ആ ആ ആ

ഓക്കേ ഓക്കേ ആ ആ ആ അപ്പോൾ എന്തായാലും ക്ലാസ്സിപ്പോൾ ജൂണിൽ തുടങ്ങും അല്ലേ

അതെ അതെ ആ ആ ആ ആ ഞാനിവിടെ പേയ്മെൻ്റ് ഇവിടെ പായ് ചെയ്തുകൊളളാം

ഓക്കേ ഓക്കേ ആ താങ്ക് യു മാം ശരി